വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പല കാലാവസ്ഥയിലും അതിൻ്റെ പൂർണ്ണ അതായത് ശക്തമായ രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിലവിൽ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴക്കാലത്ത് ശക്തമായ മഴയും വെള്ളപ്പൊക്കവും അസുഖങ്ങളുമൊക്കെ പടരുന്ന ഒരവസ്ഥയും പിന്നെ ചൂട് കാലത്താണെന്നെങ്കില് ശക്തമായ ചൂടും വെള്ളമില്ലായ്മയും ഒക്കെ അനുഭവിക്കുന്ന ഒരു സന്ദർഭങ്ങളിൽ സന്ദർഭങ്ങളിലൂടെയാണ് കൂടുതൽ കടന്നു പോകുന്നത് എല്ലാ കാലഘട്ടത്തിലും അതിൻ്റേതായ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അതിൻ്റേതായ പ്രശ്ങ്ങൾ നിലവില് ഉണ്ട് അപ്പോള് മഴക്കാലത്താണെന്നുണ്ടെങ്കില് വെള്ളം കയറി എല്ലാ വീടുകളിലും റോഡുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരവസ്ഥ നിലവിലുണ്ട് അതോടൊപ്പം തന്നെ മാരകമായ അസുഖങ്ങൾ കോവിഡ് നിപ്പ പോലുള്ള അസുഖങ്ങളും ഈ കാലഘട്ടങ്ങളില് നമ്മള്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ചൂട് കാലത്താണെന്നുണ്ടെങ്കില് കൂടുതൽ അമിതമായ ചൂട് കാരണം ആളുകള് മരണപ്പെടുന്ന ആ അവസ്ഥയും പിന്നെ വെള്ളം കുറവുള്ളതുകൊണ്ട് വൈദ്യുതിയും മറ്റും മുടങ്ങുന്ന അവസ്ഥയും നിലവിലുണ്ട്